ഫോട്ടോ എടുക്കുമ്പോൾ താജ്മഹൽ അതുപോലുള്ള എല്ലാ രീതിയിലും ചെയ്യുകയും അത് അധികമായിട്ടുള്ള രീതിയിൽ താജ്മഹൽ അതായത് ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഫേവറേറ്റ് ഇതായിട്ടുള്ള രീതിയിലുള്ള പ്ലേസ് നമുക്കുണ്ട് അതായത് താജ്മഹൽ ആയിക്കോട്ടെ നമുക്ക് ഡൽഹിയിൽ ഒരു ഒരു ഡ്രീം പ്ലേസ് ഉണ്ട് അപ്പം ആ ഡ്രീം പ്ലേസിൽ പോയി ഫോട്ടോസ് എടുക്കുകയും ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷനില് ഫോട്ടോ എടുക്കുകയും വേണം പെർഫെക്ഷനില് വീഡിയോ എടുക്കുകയും വേണം ചെയ്യുകയും വേണം അതിനൊരു പെർഫെക്ഷൻ തന്നെ കിട്ടുകയും വേണം അത് എന്നുവച്ചാൽ നമുക്ക് ഇപ്പം ഒരു ഇഷ്ടം ഉള്ള പ്ലേസില് പോവാം എനിക്ക് പോവാൻ താജ്മഹൽ അവിടുത്തെ ആ ഒരു പ്ലേസ് ഒരു എന്താ പറയുക ഒരു റൊമാൻറ്റിക്കലി ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയി അവിടെ ചെന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കുകയും അത് നമുക്ക് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലിട്ട് നമുക്ക് അത് ഒന്ന് ചെയ്യുകയും വേണം